നമ്മുടെ പ്രധാന വെല്ലുവിളി നല്ല നല്ല ഹോസ്പിറ്റലുകൾ ഗവൺമെൻ്റ് തലത്തിലും സ്റ്റേറ്റ് തലത്തിലും എല്ലാം ഉണ്ട് പിന്നെ കൂടാതെ പ്രൈവറ്റായിട്ടുള്ള ഒത്തിരി ക്ലിനിക്കുകളും ആശുപത്രികളും ഒക്കെ ഉണ്ട് എങ്കിൽകൂടിയും ഇപ്പോഴും പാവങ്ങളായിട്ടുള്ളവർക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലിനെ ഒന്നും ആശ്രയിക്കാൻ പറ്റത്തില്ല ഒത്തിരി ലക്ഷങ്ങളായിരിക്കും അവിടത്തെ ട്രീറ്റ്മെന്റിന് ചിലവാകുന്നത് അപ്പോൾ എപ്പോഴും പാവങ്ങളൊക്ക ആ എപ്പോഴും ഗവൺമെൻ്റ് ഹോസ്പിറ്റലും മെഡിക്കൽ കോളേജുകളെ പോലെയുള്ളവയെ ആണ് ആശ്രയിക്കുന്നേ അവിടെ നമ്മള് ഇപ്പോള് ആയിരം പേരും ഒക്കെ ഒത്തിരി ആ വന്നുകഴിഞ്ഞാലും അവരെ എല്ലാവരേയും ചികിൽസിക്കാനായിട്ട് മതിയായ ഡോക്ടേഴ്സോ നേഴ്സുമാരോ ഇല്ല കാരണം ഇവിടത്തെ നേഴ്സും ഡോക്ടറൊക്കെ പഠിച്ചിറങ്ങിയ ഉടനെ വിദേശങ്ങളിൽ പോകുന്നു അവർക്കു കൂടുതൽ പൈസ കിട്ടും അവിടെ പോയി ജോലി ചെയ്താല് അത് അതുകൊണ്ടവര് പഠിച്ചിറങ്ങിയ ഉടനെ ഇന്ത്യ വിട്ടിട്ട് പോകുന്നുണ്ട് പക്ഷെ കുറച്ച് ആളുകൾ ഇവിടെ നില്ക്കുന്നുണ്ട് അവരുടെ ചികിത്സ നമുക്ക് ലഭ്യമാകാൻ എല്ലാവർക്കും ലഭ്യമാവത്തില്ല കാരണം ഇത്രയും ആളുകളെ ഒരുമിച്ച് ഒരു ഡോക്ടർക്ക് ഒരു പരിമിതിയുണ്ട് ഇത്രയും പേഷ്യൻ്റിനെയല്ലേ അവർക്ക് നോക്കാൻ പറ്റത്തുള്ളൂ എങ്കിൽകൂടിയും നമ്മുടെ ആരോഗ്യ നിലവാരം ആരോഗ്യ സംരക്ഷണം അത്ര മോശം ഒന്നും അല്ല എങ്കിൽ കൂടിയും കൂടുതൽ ഡോക്ടേർസിനേയും നേഴ്സിനെയൊക്കെ ഇവിടെ കൂടുതൽ ശമ്പളം കൊടുത്ത് അവർക്ക് അവരുടെ കാര്യങ്ങള് നിർവഹിക്കത്തക്ക രീതിയിലുള്ള ശമ്പളം കൊടുത്തിവിടെ നിർത്തുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യ സംരക്ഷണമേഖല കുറച്ചുകൂടെ നന്നാ നന്നാവും പിന്നെ മിക്കപ്പോഴും കുറച്ചുകൂടെയൊക്കെ ഗവൺമെൻ്റ് തലത്തിൽ എല്ലാ പഞ്ചായത്ത് തലത്തിലും ഒക്കെ ഈ പ്രാന്തപ്രദേശങ്ങളിലൊക്കെ ആളുകൾക്ക് വേണ്ടി ക്ലിനിക്കുകളും ആഴ്ചയിൽ രണ്ട് മൂന്ന് ദിവസം ക്ലിനിക്കുകളും അവിടെ ഡോക്ടേഴ്സിനെ നല്ല ഡോക്ടേഴ്സിനെയൊക്കെ വച്ച് പണ്ടത്തേതിൽ കൂടുതൽ കുറച്ചുകൂടെ മെച്ചപ്പെട്ടിട്ടുണ്ട് നമ്മുടെ ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള സ്ഥാപനങ്ങള് പിന്നെ ഇതു പ്രൈവറ്റ് ഹോസ്പിറ്റലിനെ ആശ്രയിക്കുന്നവര് മിക്കവാറും നല്ല പൈസയുള്ളവരായിരിക്കും അങ്ങനെ ലക്ഷങ്ങള് മുടക്കി എല്ലാവർക്കും ചികിൽസിക്കാൻ പറ്റത്തില്ലല്ലോ പിന്നെ ഈ ഗവൺമെൻ്റ് ഹോസ്പിറ്റലെന്ന് പറഞ്ഞാല് അത്ര വൃത്തി കുറച്ച് കുറവാണ് ക്ലീൻ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഒത്തിരി സ്റ്റാഫൊന്നും ഇല്ലാത്തതുകൊണ്ട് അഞ്ചോ വലിയ മെഡിക്കൽ കോളേജിലൊക്കെ ഇത്രയും കാര്യങ്ങൾ നോക്കാൻ അഞ്ചോ പത്തോ ആളുകളെ വച്ചാലൊന്നും അതെപ്പോഴുമൊന്നും ക്ലീൻ ആയിരിക്കത്തില്ല പിന്നെ അവരെ വച്ചവരെക്കൊണ്ട് അവർക്ക് പറ്റുന്ന രീതിയിൽ അവര് കാര്യങ്ങളൊക്കെ നടത്തും